വീടിനു ചുറ്റും ആദ്യം തന്നെ കാടുകൾ വീശുക ചെറിയ ചെറിയ കാടുകളൊക്കെ പറിച്ച് കളയുന്നതായിരിക്കും നല്ലത് വേരോടെ പിഴുത് കളയുന്നതായിരിക്കും നല്ലത് പിന്നെ കുഴിയുള്ള ഭാഗങ്ങളൊക്കെ മണ്ണിട്ട് നികത്തുക വെള്ളം കെട്ടി നിർത്താതിരിക്കുക മഴക്കാലം തുടങ്ങുമ്പോള്ത്തന്നെ ഏറ്റവും പ്രധാനമായ സംഗതിയാണ് വെള്ളം കെട്ടി നില്ക്കാതിരിക്കാനുള്ള ശ്രദ്ധ എവിടെയെങ്കിലും ഒരു നിസ്സാരമായൊരു ഇല പോലും വെള്ളം നിറയുന്ന രീതിയിൽ ഉണ്ടെങ്കിലത് എടുത്ത് കമഴ്ത്തിവെയ്ക്കുക അല്ലെങ്കില് ചിരട്ട പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളൊക്കെ തോട്ടത്തിലൂടെയൊക്കെ കണ്ടുകഴിഞ്ഞാല് അതെടുത്ത് വെള്ളം നിറയാത്ത രീതിയിയില് ചാക്കിലും മറ്റും നിറച്ച് സൂക്ഷിക്കുക കൂടാതെ വലിയ വലിയ കാടുള്ള സ്ഥലങ്ങളിലൊക്കെ ചെത്തി നന്നായി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അതിലൂടെ പിന്നെ ഭക്ഷണ അവശിഷ്ടങ്ങൾ വലിച്ചെറിയുമ്പോഴോ അങ്ങനെയൊക്കെ അവിടെ കാണുന്നതും അതൊക്കെ കെട്ടിനില്ക്കാന് ചാൻസുണ്ട് അപ്പം ഭക്ഷണാവശിഷ്ടങ്ങൾ നമ്മള് ഒരു കുഴിയെടുത്ത് അതിന്റെയകത്ത് കുഴിച്ചുമൂടുക രണ്ട് നേരവും വീടിന് ചുറ്റും അടിച്ചുവാരി വൃത്തിയാക്കിയിടുക ചുറ്റിലും ചാല് കീറിക്കൊടുക്കുക വെള്ളം ഒഴുകിപ്പോകുന്ന രീതിയില് ചുറ്റിലും ചാല് കീറിക്കൊടുക്കുക അപ്പോള് കൂടുതലായിട്ട് മഴക്കാലരോഗങ്ങളൊക്കെ വരുന്ന സമയമാണ് അപ്പം കൊതുക് നിറയും പിന്നെ ഡെങ്കിപ്പനി ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് ഇപ്പോള് കൂടുതലായിട്ട് പറയാനുള്ളത് വേസ്റ്റ് വെള്ളങ്ങളും വെള്ളം പോകുന്ന വഴികള് തിരിച്ച് ഒരു കുഴിയിലേക്ക് ഇതാക്കുകയാണ് വേണ്ടത് മൃഗങ്ങള് ഉള്ള വീടുകളിലാണെങ്കിൽ വളരെ വൃത്തിയായി മൃഗങ്ങളെയും വളരെ വൃത്തിയായി പരിപാലിക്കുകയും ചാണകവും മൂത്രവുമൊക്കെ ഒഴുകി വരാതെ കുഴിയെടുത്ത് അതിലേക്ക് അടിക്കുകയും അവിടെ അണുവിമുക്തമാക്കുകയും ചെയ്യണം